എനിക്ക് പാട്ട് പഠിക്കാനും അല്ലെങ്കിൽ പാട്ട് കേൾക്കാനായിട്ടും ഒക്കെ ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ് ഞാനാണെങ്കിൽ അതിന് വേണ്ടി പല രീതിയിലും ശ്രമങ്ങൾ നടത്താറുമുണ്ട് ഞാനാണെങ്കിൽ അതിനോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ ഓരോ കാര്യങ്ങൾക്ക് അതായത് വയലിൻ പഠിക്കാൻ ഗിറ്റാർ പഠിക്കാൻ കീബോർഡ് അങ്ങനെയുള്ള കുറെ ഇൻസ്ട്രുമെൻറ്സൊക്കെ പഠിക്കാനായിട്ട് ഞാൻ പോയിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ അതിന് ചേർന്നിട്ടുണ്ട് അതൊക്കെ ആദ്യമേ എനിക്ക് ഞാൻ പോയി ഇതിനെ കുറിച്ച് എങ്ങനെയാണെന്നുള്ള അറിയാമെങ്കിലും പക്ഷേ ഞാൻ ഇത് ഇത് ഞ ഒരിക്കലും ഞാൻ ഇതുവരെയായിട്ടും ചെയ്തിട്ടില്ലാത്ത കാര്യമായത് കൊണ്ട് എനിക്ക് ആദ്യമേ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ലായിരുന്നു പിന്നീട് ഞാനത് ഓരോ തവണയും ഞാനത് യൂസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടിസിലൂടെ ഞാൻ അതാണെങ്കിൽ കുറച്ച് കുറച്ച് ആയിട്ട് എനിക്കിത് മനസ്സിലാക്കാനും അല്ലെങ്കിൽ എങ്ങനെ അത് യൂസ് ചെയ്യാൻ പറ്റും നമ്മളുടെ നമ്മൾ ഓരോ സോങ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമുക്ക് അതേ രീത രീതിയിലൊക്കെ എന്റെ കമ്പോസ്സെയ്യനായിട്ട് പറ്റും എന്നുള്ളത് എനിക്ക്ത് മനസ്സിലാക്കി നല്ലപോലെ ആദ്യമേ എനിക്ക് ആണെങ്കിൽ നല്ല പാടായിരുന്നു ഇതൊക്കെ ചെയ്യാനായിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ശരിക്ക് അറിയില്ലായിരുന്നു ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ലായിരുന്നു പിന്നീട് ഞാനാണെങ്കില് ഓരോ തവണയാണെങ്കിലും ഇങ്ങനെയത് എനിക്ക് അതിനുള്ള താൽപര്യം കൊണ്ട് ഞാനാണെങ്കിൽ വീണ്ടും വീണ്ടും അത് ചെയ്ത് പഠിച്ചു എൻ്റെ ഹാർഡ് വർക്ക് കൊണ്ട് ഞാൻ അത് നല്ല രീതിയിൽ ചെയ്തു പഠിക്കാൻ ശ്രമിച്ചു ആ ഓരോ തവണയും എനിക്ക് ചെയ്യും തോറും ഓരോ തവണ എനിക്ക് അറിവ് കൂടി കൂടി വരാനിത് എങ്ങനെയാണ് ചെയ്യേണ്ട ഇത് എങ്ങനെയൊക്കെ ഓപ്പറേറ്റ് ചെയ്താൽ എങ്ങനെയൊക്കെ നമുക്ക് നല്ലരീതിയിൽ കൊണ്ട് പോകാം എന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലായി നല്ല രീതിയിൽ ആണെങ്കിലും ഞാനത് പഠിച്ചെടുത്തു അതിലൂടെ ആണെങ്കിൽ എനിക്ക് പാട്ടൊക്കെ കമ്പോസ് ചെയ്യാനായിട്ടും പല രീതിയിലാണെങ്കിൽ അതിൻ്റെ മ്യൂസിക്കുകളൊക്കെ ആണെങ്കിലും എനിക്ക് ചെയ്യാനായിട്ടും പറ്റി ഇപ്പോൾ ഗിത്താറിന്റെ എടുക്കുകയാണെങ്കിൽ എനിക്ക് അതിന്റെ സ്ട്രിങ്സ് ഒക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എ നമ്മളുടെ കൈ ഏത് രീതിയിൽ ഏത് പൊസിഷനിലേക്കാണ് വെക്കേണ്ടത് എന്നുള്ളതൊക്കെ എനിക്ക് അറിയില്ലായിരുന്നു ഞാനത് ശ്രദ്ധിച്ച് ഞാൻ ഓരോരുത്തരും ചെയ്യുമ്പോഴാണെങ്കിലും ഞാൻ ഓരോ വീഡിയോസിലൂടെ ഒക്കെ ആണെങ്കിലും ട്യൂട്ടോറിയലിനകത്തുകൂടെയൊക്കെ ആണെങ്കിലും ഞാൻ ഓരോ തവണ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് ഇത് എങ്ങനെയാണെന്നുള്ളത് എന്ന് ഞാൻ അത് മനസ്സിലാക്കി ഞാൻ പിന്നീടാണെങ്കിലും ഒരു ക്ലാസ്സിലേക്ക് ആണെങ്കിലും ഞാൻ പോയി ജോയിൻ ചെയ്ത് അവിടുന്ന് ഞാനാണെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത് എനിക്ക് അവർ പറഞ്ഞു തന്ന് ഞാൻ പിന്നീടാണെങ്കിൽ അത് പ്രാക്ടീസ് പലതവണ ഞാൻ പ്രാക്ടീസ് ചെയ്ത് ചെയ്ത് പിന്നെ അത് നല്ല രീതിയിലാണെങ്കിൽ പഠിച്ചെടുത്തു എനിക്ക് ആണെങ്കിൽ ഇപ്പോൾ അത് നല്ല രീതിയിൽ ആണെങ്കിൽ യൂസെയ്യാനായിട്ട് പറ്റുന്നുണ്ട് ഞാനാണെങ്കിൽ നല്ല രീതിയിൽ ഇപ്പോൾ അതെ ഗിത്താറാണെങ്കിലും കീബോർഡാണെങ്കിലും വയലിൻ അങ്ങനെയുള്ള കുറെ ഇൻസ്ട്രുമെൻറ്സൊക്കെ ഞാൻ യൂസ് ചെയ്ത് നല്ലരീതിയിൽ ആണെങ്കിൽ ആ ഫ്ലൂട്ടാണെങ്കിൽ നല്ല രീതിയിൽ ഞാനത് യൂസെയ്യുന്നുണ്ട് എനിക്ക് അത് അതിനോട് എനിക്ക് അത്രക്ക് താല്പര്യമുള്ളത് കൊണ്ടാണ് ഞാൻ അത്രയൊക്കെ എനിക്കാണെങ്കിലും എനിക്ക് പറ്റില്ല എന്ന് ഞാൻ ഒരിക്കലും എൻ്റെ മനസ്സിൽ ഉറപ്പിക്കാതെ ഞാൻ അത് എന്നെകൊണ്ട് പറ്റും എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ അത് മുന്നോട്ട് പോയത് കൊണ്ടാണ് എനിക്കത് ഇപ്പോൾ പഠിച്ചെടുക്കാനായിട്ടാണെങ്കിലും പറ്റിയത് ഞാനാണെങ്കിൽ അത്രയ്ക്ക് എനിക്ക് അതിനോട് ഇഷ്ടവും അല്ലെങ്കിൽ എൻ്റെ ഒരു പാഷനായിട്ട് ഞാൻ അതിനെ കൊണ്ട് നടന്ന് അല്ലെങ്കിൽ ഞാൻ അത്രക്ക് എനിക്ക് എൻ്റെ ലൈഫായിട്ട് വേണ്ടപ്പെട്ടതാണ് എന്നുള്ള രീതിയിൽ എനിക്ക് ഒരു കൊണ്ട് നടന്ന് അങ്ങനെ ഞാനത് പഠിച്ചെടുത്തതു കൊണ്ട് എനിക്കാണെങ്കിൽ അതിനോട് ഇപ്പോഴും ആ ഒരു പാഷൻ ഉണ്ട് എൻ്റെ ലൈഫിലൊരു ഇമ്പോർട്ടന്റായിട്ടുള്ള ഒരു കാര്യമാണ് മ്യൂസിക് എന്ന് പറയുന്നത് എനിക്കാണെങ്കിൽ മ്യൂസിക്കില്ലാണ്ട് പറ്റില്ല ആ ഒരു രീതിയിൽ ഞാൻ അത്രക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ലൈഫിൽ മ്യൂസിക് എന്ന് പറഞ്ഞ് അപ്പോൾ എനിക്ക് അതിനോട് അത്ര താല്പര്യമാണ് പഠിക്കാനായിട്ട് അപ്പോൾ ഞാനും എത്രയൊക്കെ എനിക്ക് സാങ്കേതിക കാര്യങ്ങളിൽ ആണെങ്കിൽ എനിക്കും ഭയങ്കര ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഞാൻ ആണെങ്കിൽ അത് ഒക്കെ ഞാൻ ഓവർ കം ചെയ്തിട്ടാണെങ്കിലും നല്ല രീതിയിൽ ഞാൻ അതിനെ വീണ്ടും വീണ്ടും നല്ല രീതിയിലേയ്ക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ ശ്രമിച്ചു എനിക്കാണെങ്കിലും എന്താ പറയുക നല്ല രീതിയിൽ അതിനെ ഇപ്പോഴും എനിക്ക് അത് ചെയ്യാൻ പറ്റുന്നുണ്ട് ഞാൻ ഇനിയും കൂടുതലായിട്ട് അതിനെ കുറിച്ച് നല്ല രീതിയിൽ പഠിക്കും എന്ന് ഇനിയും നല്ല രീതിയിൽ അത് ചെയ്യാനായിട്ട് ശ്രമിക്കും